കുട്ടിക്കാലത്ത് ഞാൻ ഒന്ന് തൊട്ട് നാലുവരെ ടൂർ പോയിട്ടുണ്ട് ഒന്നിൽ ഞാൻ ആലപ്പുഴ ബീച്ച് ഒന്നിലും രണ്ടിലും ആലപ്പുഴ ബീച്ച് മൂന്നിലും നാലിലും തിരുവനന്തപുരവും വണ്ടർലായും ആണ് പോയിരിക്കുന്നത് തിരുവനന്തപുരത്തെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ സൂയിൽ പോയി പ്ലാനിറ്റോറിയം കണ്ടു തുമ്പ റിസർച്ച് സെൻട്രലിൽ പോയി ശങ്കുമുഖം കടപ്പുറത്ത് പോയി വൺഡേ ട്രിപ്പ് ആയിരുന്നു രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരികയായിരുന്നു നാലിലെ ടൂർ എന്ന് പറയുന്നത് വണ്ടർല ആണ് പോയത് നാലാം ക്ലാസിലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ പോയി രാവിലത്തെ രാവിലെ തൊട്ട് ഉച്ചവരെ കരയിലുള്ള എല്ലാ റൈഡിലും ഉച്ചകഴിഞ്ഞ് വെള്ളത്തിലുള്ള റൈഡിലും ആയിരുന്നു കയറിയത് ഒന്നിലും രണ്ടിലും ഞാൻ ആലപ്പുഴ ആണ് പോയത് റെയിൽവേ സ്റ്റേഷൻ ആലപ്പുഴ ഗ്ലാസ് ഫാക്ടറി പിന്നെ ബീച്ച് ഇവിടെയെല്ലാമാണ് പോയത് അഞ്ചിലും ആറിലും ഞാൻ ടൂറ് പോയിട്ടില്ല ഏഴാം ക്ലാസിൽ വച്ച് ഞാൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം വാഴച്ചാൽ ഡ്രീം വേൾഡ് എന്നിവയിലേക്കാണ് പോയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ലോകത്തിലെ തന്നെ ഒരു വലിയ വെള്ളച്ചാട്ടത്തിൽ ഒന്നാണ് അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റി അതേപോലെ വാഴച്ചാൽ എന്ന് പറയുന്നത് ഈ ആതിരപ്പള്ളിയിലെ വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു വാഴച്ചാൽ എന്ന് പറയുന്നത് പിന്നെ ഡ്രീം വേൾഡ് എന്ന് പറയുന്നത് ഒരു വാട്ടർ തീം പാർക്ക് ആയിരുന്നു അവിടെയും ഞങ്ങൾ കുറേ നേരം സ്പെന്റ് ചെയ്തു രാവിലെ തൊട്ട് ഉച്ചവരെ കരയിലുള്ള റൈഡും അതുകഴിഞ്ഞ് വെള്ളത്തിലും ആയിരുന്നു ഞങ്ങൾ സ്പെന്റ് ചെയ്തത് ഞങ്ങൾ വൈകിട്ട് തിരിച്ചുവന്നു അതും ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു ഏഴിലും എട്ടിലും ഒമ്പതിലും അല്ല എട്ടിലും ഒമ്പതിലും പത്തിലും ഞാൻ ടൂർ പോയിട്ടില്ല പ്ലസ് വണ്ണിലും പോയിട്ടില്ല പിന്നെ ഞാൻ പോയത് പ്ലസ് ടുവിൽ വണ്ടർലയിലായിരുന്നു ആ ട്രിപ്പും ഒരു ഒരു ഓർമ്മയുള്ള ട്രിപ്പ് ആയിരുന്നു കാരണം എൻ്റെ പ്ലസ് ടു ലൈഫിലെ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഉണ്ടായിരുന്നു അതൊരു മനോഹരമായ ട്രിപ്പ് ആയിരുന്നു പിന്നെ ഞാൻ പോയത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പി ജിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല ഡിഗ്രിയിലെ ട്രിപ്പ് എന്ന് പറയുന്നത് അഞ്ച് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു കർണാടകയാണ് ഞങ്ങൾ പോയത് മാൽപേ ബീച്ച് കൂർഗ് ചിക്ക് മാഗ്ലൂർ എന്നിവയിലെ എന്നിവിടങ്ങളിലേക്കാണ് പോയത് അഞ്ചു ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അതൊരു മനോഹരമായ ട്രിപ്പ് ആയിരുന്നു കാരണം ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് ദിവസങ്ങളിൽ ആണ് ഞങ്ങൾ പോയത് സൊ കുട്ടികളെ പിരിയുന്ന ആ ഒരു വിഷമവും പിരിയുന്നതിനു തൊട്ടു മുന്നേയുള്ള ടൂർ ആയതുകൊണ്ട് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൂർ ആയിരുന്നു കർണാടക ടൂറ് അന്ന് അടിച്ചുപൊളിച്ചാണ് ഈ അഞ്ചു ദിവസം ഞങ്ങൾ സ്പെന്റ് ചെയ്തത് പോയ സ്ഥലങ്ങളും കേരളത്തിന് പുറത്തുള്ളത് ആയതു കാരണം ഫുഡ് ആണെങ്കിലും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ പറ്റി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു ടൂർ ആയിരുന്നു ഡിഗ്രിയിലെ ടൂറ്